ഹലോ കേൾക്കുന്നുണ്ടൊ അന്ന് തൊട്ട് ഇങ്ങനത്തെയാണോ നോക്കുന്നത് ഫോട്ടി സെൻ്റെ ആ ഓ ഓ ഞങ്ങൾക്ക് കൺസ്ട്രക്ഷനുമുണ്ട് ഞങ്ങൾ സ്ഥല റിയൽ എസ്റ്റേറ്റും ഉണ്ട് അപ്പം നിങ്ങൾക്കേതാണ് വേണ്ടതെന്ന് വെച്ചാൽ ടോൺ സ്റ്റേ ടൌൺ ഭാഗത്ത് വേണോ അതോ ഉൾ ഏരിയ അങ്ങനേതേലും ഭാഗത്തേക്ക് വേണോ ആ ആ ഓക്കെ ഓക്കെ മിഡിൽ മിഡിൽ മിഡിലേരിയാ ഓക്കെ ഓക്കെ മനസിലായി ആ ഓക്കെ നിങ്ങളെത്രയാണ് ബഡ്ജറ്റ് നോക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് ഓക്കെ ഓക്കെ ഓക്കെ ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ളെയൊരു ഒരു തേട്ടിഫൈ സെന്റ് ഉണ്ട് നിങ്ങള് പറഞ്ഞ മാതിരി ഫോട്ടി സെന്റ് ഇല്ല തേട്ടി ഫൈ സെന്റുണ്ട് അപ്പൊൾ ഞങ്ങള് സെന്റിന് പതിനഞ്ച് ലക്ഷമാണ് പറയുന്നത് ആ അപ്പൊൾ നിങ്ങൾക്കത് ഒക്കെയാണെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്യാം അത് അത് മിഡിൽ ഏരിയ ആകുന്നതുകൊണ്ട് കാരണം അവിടുന്ന് വൺ കിലോമീറ്റർ ടൗൺ ഏരിയക്ക് ടൗണിക്ക് ഉള്ളു ഒരു വൺ കിലോമീറ്ററ് ടൗണിക്ക് പിന്നെ നമുക്കെന്ത് കാര്യങ്ങളും ഇപ്പൊൾ ടൗണ് പെട്ടെന്ന് ടൗണ് പോകണമെന്നുണ്ടെങ്കിൽ അപ്പമത് വളരെ എളുപ്പാണ് പിന്നെ നമക്ക് കുറച്ച് ഗ്രാമങ്ങളുണ്ട് ഒരു സൈഡേക്ക് പോയാല് അങ്ങനൊക്കെയൊരു പിന്നെ നമുക്ക് എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സ്ഥലമാണ് അത് അപ്പൊൾ അത് നോക്കണോ അതോ ഓക്കെ പിന്നെ കൺസ്ട്ര ആ ആ ഞാൻ പറഞ്ഞെ ആ പറയാം പറയാം പറയാം കൺസ്ട്രക്ഷൻ്റെ കാര്യം പറഞ്ഞാല് ഞങ്ങള് ഫുൾ ഫുള്ളായിട്ട് ഞങ്ങളാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് മുതലേ സ്റ്റാർട്ടിങ്ങ് മുതലേ എൻഡിങ് വരെ ഞങ്ങള് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊൾ നിങ്ങളുടെ മോഡല് എങ്ങനൊക്കെയാണ് നിങ്ങളുടെ കൺസെപ്റ്റ് എങ്ങനെയാന്നുള്ളത് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകും

ആ നിങ്ങള് എങ്ങനത്തെ എങ്ങനത്തെ മോഡല് വീ മോഡല് വീടാണ് നിങ്ങള് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമുക്ക് എന്നാൽ നമുക്കൊരു ഇപ്പത്തെയൊരു പുതിയ പുതിയൊരു മോഡൽസുണ്ട് അപ്പൊൾ നിങ്ങക്കതയച്ചു തരാം നിങ്ങക്കത് ഇഷ്ട്ടപെട്ടാൽ നിങ്ങൾ ഏകദേശം ഒന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ട് അവിടെ വന്നിട്ട് നോക്കാം നമുക്ക് ഞങ്ങളങ്ങോട്ട് ഒരു ദിവസം വരാം നിങ്ങള് ഫ്രീ ആകുമ്പോൾ സാറ് ഫ്രീ ആകുമ്പോൾ ഓക്കെ ഒ ആ ഓക്കെ